ഞാനാണെങ്കിൽ അവിടെ എനിക്ക് പരീക്ഷയ്ക്ക് സംസ്കൃതത്തിന് മലയാളത്തിലോട്ട് എഴുതാനും അതുപോലെതന്നെ ചില സമയങ്ങളിൽ മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിൽ എഴുതാനും ഉണ്ടായിരുന്നു ഇത് എഴുതാൻ എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമല്ല എളുപ്പമല്ലേന്ന് ചോദിച്ചാൽ എളുപ്പവുമാണ് നല്ലതുപോലെ ചില പാരഗ്രാഫുകൾ കറക്റ്റ് നല്ലോണം അറിയാമായിരിക്കും കാരണം നമ്മൾ എവിടേലും വായിച്ചിട്ടുള്ളതോ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ളൊരു പാരഗ്രാഫാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിലോട്ടായിരുന്നാലും അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലോട്ടായിരുന്നാലും വിവർത്തനം ചെയ്യാം അല്ലാതെ റാൻഡമായിട്ട് വരുന്ന ഒരു പാരഗ്രാഫിനെ പെട്ടെന്ന് എന്ന് വെച്ചാൽ പത്താംക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ അർത്ഥവത്തായിട്ട് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്യാനോ അല്ലെങ്കിൽ സംസ്കൃതത്തിലോട്ട് വിവർത്തനം ചെയ്യാനോ വളരെ പാടുള്ള ഒരു കാര്യമാണ് കാരണം വളരെ പാട് കാരണം ഓരോ എന്ന് വെച്ചാൽ ഓരോ ഭാഷയിലും അതിൻ്റെതായ കുറേ ഇതുണ്ട് കാര്യങ്ങളുണ്ട് അതേപോലെതന്നെ ഇപ്പം മലയാളത്തിനെ കുറെ ചില്ലക്ഷരങ്ങൾ ഉള്ളതുപോലെ സംസ്കൃതത്തിലുമുണ്ട് അപ്പോൾ നമ്മൾ അറിയണം ഏതാണ് മലയാളത്തിൽ ഉള്ള വാക്കിന് ഇതായിട്ട് കൊടുക്കുന്ന ചില്ലക്ഷരങ്ങളെന്നുവച്ചാൽ ഇപ്പോൾ മറ്റേ നിങ്ങളുടെ ഇതൊക്കെ എഴുതുമ്പോൾ ക്കാ അത് സംസ്കൃതത്തിൽ അതിലുമുണ്ട് ഇതേപോലെ സാധനം അപ്പം അതെഴുതാൻ അറിയണം അപ്പം എല്ലാത്തിൻ്റെയും മലയാളം മീനിങ് സംസ്കൃതത്തിൻ്റെ മലയാളം മീനീങ്ങും മലയാളത്തെ സംസ്കൃതത്തിൽ ആക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലെ നമുക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു തർജ്ജമ്മ ചെയ്യാൻ കഴിയത്തുള്ളൂ അതുപോലെതന്നെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഒരു പാരഗ്രാഫിനെ തർജ്ജമ ചെയ്യണമെങ്കിൽ രണ്ടു ഭാഷയിലും നമ്മൾ വളരെ അഗ്രഗണ്യനായിരിക്കണം എന്നാൽ മാത്രമേ ഒരു ഭാഷയെ മറ്റൊരു ഭാഷയിലാക്കുമ്പോൾ വളരെ മനോഹരവും അതുപോലെതന്നെ അർത്ഥവത്തും അർത്ഥവ മായ ഒരു പാരഗ്രാഫാക്കി നമുക്കതിനെ കിട്ടത്തുള്ളൂ അപ്പം അത്രയും ഇത് അഗ്രകണ്യനായ ഒരാളെ കൊണ്ടെ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിൻറ്റേതായ രീതിയിൽ അത് ചെയ്യും പിന്നെ കുട്ടികളുടെ കാര്യം പറയാണെങ്കിൽ പറയുകയാണെങ്കിൽ അത് കുറച്ച് കഷ്ടമാണ് കാരണം എല്ലാ കുട്ടികൾക്കും എല്ലാം ചില വാക്കുകളുടെ മലയാളം അറിയണമെന്നില്ല അതുപോലെ തന്നെ സംസ്കൃതത്തിലായിരുന്ന സംസ്കൃതത്തിലുള്ള ഭാഷ ൻ്റെ മലയാളം നമുക്ക് അറിയണമെന്നും എന്നില്ല അതുപോലെതന്നെ മലയാളത്തിലുള്ള ഭാഷയുടെ സംസ്കൃതവും നമുക്ക് അറിയണമെന്നില്ല അപ്പം അത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും അത് അറിയാവുന്നുള്ള ഒരാൾക്കാണെങ്കിൽ അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യവുമാണ് ഭാഷ നല്ലത് പോലെ കൈകാര്യം ചെയ്യാനുള്ള അറിയാവുന്നുള്ള ഒരാൾക്ക് വളരെ എളുപ്പമായിട്ടുള്ളതും എന്നാൽ ഭാഷയിൽ എല്ലാ വാക്കുകളും അതുപോലെതന്നെ അതിൻ്റെ മലയാളവും അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ അത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യവുമാണ്